ദേശീയ അന്തർദേശീയ തലത്തിൽ ഒത്തിരി കായിക മത്സരങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്ന് വരുന്നുണ്ട് അതിൽ ഏറ്റവും തലപ്പത്ത് നയിക്കുന്നത് കാൽപ്പന്ത് കളിയാണ് രണ്ടാമത്തെ ക്രിക്കറ്റ് അങ്ങനെ ഇത് രണ്ടുമാണ് ഗ്രൂപ്പ് ടീം വൈസ് ന്നാണ് ഇപ്പോൾ നമ്മുടെ കാ കേരളത്തിലും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവൻ എന്നല്ല ലോകം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കളികളാണ് ഒന്ന് കാൽപ്പന്തു കളി രണ്ട് ക്രിക്കറ്റ് അതിൽ ഇപ്പോൾ കേരളത്തിൽ കാൽപന്ത് കാൽപ്പന്ത്കളി ഒത്തിരി ഇപ്പം ഈ കുട്ടികളുൾപ്പെടെ വലിയവർ ഉൾപ്പടെ എല്ലാവരും കൂടെ കൂടിയാണിപ്പോൾ കാൽപ്പന്തു കളി വളർന്ന് വളർന്ന് കൊണ്ടിരിക്കുകയാണ് അതില് ഞാൻ പ്രാധാനപ്പെട്ടതായി പറയനാഗ്രഹിക്കുന്നത് കാൽപ്പന്തുകളിയാണ് കാൽപ്പന്ത് കളി കാൽപ്പന്ത് കളികൾ പല തരത്തിൽ പല പല ഡിവിഷനുണ്ട് കുട്ടികള് മുതിർന്നവര് അതായത് ജൂനിയർ സബ് ജു സാ സാ ജൂനിയർ സബ് ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ അങ്ങനെ പല തരത്തിൽ ഈ കാൽപ്പന്ത് കളി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് കാൽപ്പന്ത് കളിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ലോകം മുഴുവൻ ലോകം മുഴുവൻ വളർന്ന് കൊണ്ടിരിക്കുന്ന കായിക കായിക കായിക മത്സരങ്ങളാണ് ഫുട്ബോള് അതിനെപ്പറ്റി പറയാനാണ് ഞാനേറ്റവും കൂടുതലാഗ്രഹിക്കുന്നത് കാരണം എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള കളിയും ഞാൻ കാണാറുള്ള കളിയും കാൽപ്പന്ത് കളി തന്നെയാണ് കാൽപ്പന്ത് കളികള് എന്ന് പറയുമ്പത്തേനും പ്രായം എന്ന് പറയുമ്പോൾ പ്രായം അങ്ങനെ നോക്കാറില്ല ഒരു കുഞ്ഞ് കൊച്ചിന് വരെ ഫുട്ബോള് കളിച്ച് കാല് ആ ബോള് തട്ടി നടക്കാൻ കഴിയും കാരണം

ഇപ്പഴും കളിക്കാറുണ്ട് നല്ല രീതിയിൽ കളിക്കാറുണ്ട് ഫുട്ബോളാണ് എനിക്കേറ്റവും കൂടുതലിഷ്ടം ഉള്ള കളി ഇപ്പോൾ ഇപ്പോൾ കാൽപ്പന്ത് കളിയെപ്പറ്റി പറയുക മാത്രമല്ല അവർ പതിനെട്ട് വയസ്സിൻ്റെ താഴോട്ടുമുണ്ട് പതിനെട്ട് വയസ്സിൻ്റെ മുകളിലോട്ടുമുണ്ട് ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് നമ്മള് നല്ല രീതിയിൽ കളിച്ചാൽ അടുത്ത ഡിവിഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കും അങ്ങനെ നമുക്ക് ഓരോ കേരള ടീമ് ഇന്ത്യൻ ടീമങ്ങനെ ഓരോ ടീമിലേക്ക് കേറാൻ പറ്റും പക്ഷെ അതിനൊത്തിരി പ്രൊസീജേഴ്സും ഒത്തിരി ഒത്തിരി കഠിനമേറിയ ദീർഘമേറിയ ഒരു പ്രൊസീജിയർ അഥവാ ഒരു വലിയൊരു പ്രൊസസ്സാണ് ഇത് അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല പിന്നെ ഇപ്പം പിന്നെ വരുന്നതാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ഇതുപോലെ തന്നെയാണ് കുട്ടികള് തൊട്ട് മുതിർന്നവര് വരെ കളിക്കുന്നുണ്ട് എൻ്റേക്കെ വീടിനടുത്തുള്ള ഗ്രൗണ്ടിലേറ്റവും കൂടുതല് കണ്ടുവരുന്നത് മുതിർന്നവര് ക്രിക്കറ്റ് കളിക്കുന്നതാണ് കാരണം മുതിർന്നവർക്കുള്ള ക്രയ്സ് ഇപ്പഴത്തെ കുട്ടികൾക്കില്ല അവര് കളിച്ച് നടന്നത്രയും നമ്മളാരും കളിച്ച് നടക്കാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ നടത്തുക പിന്നെ പിന്നെ പിന്നെ വരുന്നത് ചെറിയ ചെറിയ ഓട്ട ചെറിയ ചെറിയ കായിക പരിപാടികാളാണ് ഇപ്പം ഷട്ടിൽ അതായത് ബാഡ്മിൻറ്റൻ വോളിബോള് ബാസ്കറ്റ്ബോള് അങ്ങനെ ഒട്ടേറെ എൻ്റെ പിന്നെ ഞാൻ മുന്നാമത് ഞാനാഗ്രഹിക്കുന്ന ബാസ്കറ്റ് ബോളിനെ പറ്റി പറയാനാണ് വളരെ നല്ലൊരു കളിയാണ് ബാസ്കറ്റ് ബോൾ കളി പൊതുവേ കുഞ്ഞിലെ ആരും ഈ ബാസ്കറ്റ് ബോൾ കാ കാ ബാസ്കറ്റ് ബോളുകളി ആരും അങ്ങനെ ഒത്തിരി കാണാറുവില്ല ഒത്തിരി അറിയപ്പെടില്ല പക്ഷേ ഒരു കോളേജ് തരത്തിലോട്ടൊക്കെ വരുമ്പളാണ് ഈ ബാസ്കറ്റ് ബോളിൻ്റെ പ്രാധാന്യം അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു അവിടെയൊരു അവര് ആ ബാസ്കറ്റ് ബോളുകളി നമ്മുടെ കോളേജുകളിൽ തരത്തിലോട്ടെത്തുമ്പളാണ് നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നത് കാരണം അത്രയും അത്രയും ആരോഗ്യം അത്രയും പൊക്കത്തിൽ ചാടുന്നു പാർക്ക് ബാസ്കറ്റ് ബോളിൽ ഇടുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഒരു അല്ലെ എന്ന് മാത്രമല്ല നമ്മൾ ഒരു ആൺകുട്ടിയാണെങ്കിലൊരു പെൺകുട്ടിയെ ആകർഷിക്കാനും ഒരു പെൺകുട്ടി കളിക്കുകയാണെങ്കിൽ ആൺകുട്ടിയെ ആകർഷിക്കാനും പറ്റിയ ഏറ്റവും നല്ലൊരു കളിയെന്ന് പറയുന്നത് ബാസ്കറ്റ് ബോളാണ് കാരണം ബാസ്കറ്റ് ബോളിലോട്ട് വെരുമ്പത്തേനും ടീമല്ല ടീമാണ് കളിക്കുന്നെങ്കില് ഇൻിവിജ്വൽ പെർസ്പെക്ടീവ്സ് ഒത്തിരി ഉണ്ട് ഇൻിവിജ്വൽ പെർസ്പെക്ടീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി ഇൻിവിജ്വൽ പെർസ്പെക്ടീവ്സ് ഉണ്ട് അതായത് ഒറ്റക്ക് ഒറ്റക്ക് ബാസ്കറ്റിലോട്ട് മൂന്നാല് അഞ്ച് തവണയൊക്കെ പോയിറ്റിടുന്നു അതൊക്കൊരു പെൺകുട്ടികൾ ഒക്കെ കാണുമ്പം അതിൽ നിന്നും കിട്ടുന്നൊരു ഒരു സുഖം നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞു വരികയാണങ്കിൽ നമ്മുടെ ദേശീയ അന്തർ ദേശീയ തരത്തിലുള്ള ഒത്തിരി കായികങ്ങള് നമ്മുടെ നാട്ടിലിപ്പോൾ വളർന്നു കൊണ്ടേ ഇരിക്കുകയാണ് കാരണം കുട്ടികളാഗ്രഹിക്കുന്നതും കൂടുതലും കളിക്കാനാണ് അത് കൂടുതലും കളികളിലേക്ക് എത്താറുണ്ട്